എല്ലായിടത്തുനിന്നും വരുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പരമ്പരാഗത ഉത്സവങ്ങൾ നമ്മളുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഇല്ല എന്ന് തന്നെ പറയാം ഇവിടെയുള്ള ഉത്സവം അത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളാണ് ഈ ഒരാഴ്ചക്കാലത്തോളം ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങള് നടക്കാറുണ്ട് ഈ ഉത്സവങ്ങൾ കാണുന്നതിനും അതിൽ പങ്കാളികളാകുന്നതിനും അതാസ്വദിക്കുന്നതിനും ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ ആളുകൾ വരാ വരുന്നുണ്ട് അത് ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിൽക്കൂടിയും നിരവധി ആളുകളെ ആകർഷിക്കുന്ന ഉത്സവങ്ങളാണ് ആരാധനാലയങ്ങളുമായിട്ട് പള്ളികളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഈ പ്രദേശത്ത് നടക്കുന്നത് അത് നാടിൻ്റെ ഒരു ഉത്സവമായിത്തന്നെ എല്ലാ ആളുകളും അത് എടുക്കാറുണ്ട് അതില് പങ്കാളികളാകാറുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ എല്ലാവർക്കും അത് അതിൽ പങ്കാ ഭാഗഭാക്കാകാനുള്ള അവസരവും ലഭിക്കുന്നുണ്ട് പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് പറയുമ്പോള് അമ്പൂരി എന്ന് പറയുന്ന ഭൂപ്രദേശം ഒരു മലയോര പ്രദേശമാണ് ഇവിടെ ടൂറിസത്തിന് വളരെയധികം അനുയോജ്യമായ പ്രകൃതി ഭംഗി കൊണ്ട് ഏറെ അനുഗൃഹീതമാണ് ഈ സ്ഥലം ഇവിടേക്ക് ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ ഇവിടത്തെ ഭൂപ്രകൃതി കാണാനും ആസ്വദിക്കുന്നതിനും എത്തുന്നുണ്ട് നിരവധി വ്യത്യസ്തമായ ടൂറിസം കേന്ദ്രങ്ങൾ കുന്നും മലകളും ഇവിടെയുണ്ട് നെയ്യാർ റിസർവോയറിൻ്റെ തീരമുണ്ട് പുഴയുണ്ട് അപ്പോള് അങ്ങനെ വ്യത്യസ്തമായ ടൂറിസ്റ്റ് ടൂറിസത്തിന് അനുയോജ്യമായ സ്ഥലങ്ങളുണ്ട് അത് വികസിപ്പിക്കുന്നതിന് ഉള്ള ശ്രമങ്ങള് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ടൂറിസം ഡെസ്റ്റിനേഷൻ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ സ്പോട്ടായിട്ട് ഈ പ്രദേശത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്